ഹലോ ഇത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട് അതിൽ അതുവഴി ശുദ്ധജലം ലഭ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ ഇവിടുത്തെ ജനപ്രീതിനിധികളും കൂടി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനു വേണ്ട ധനസഹായം നടക്കുന്നതിനും പ്രാദേശിക കമ്മ്യൂണിറ്റി നേതാക്കളുമായി സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ സഹകരിച്ചു അവരുടെ അഭിപ്രായമാനുസരിച്ച് ഞങ്ങൾ അതിനു വേണ്ട സ്ഥലങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടു തന്നെ ഞങ്ങൾക്കി ജലവിതരണ സംവിധാനം രൂപകൽപ്പന ചെയ്യുന്നതിനു വേണ്ടിയും അത് നടപ്പിലാക്കുന്നതിനു വേണ്ടിയും സഹായം സർക്കാരിൻ്റെ ഭാഗത്തുന്നു സഹായം ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടു നിങ്ങൾ ജല അതോറിറ്റിയുമായി ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കു തുടങ്ങുന്നതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സഹായം സഹായവും ധനസഹായം ചെയ്യണം എന്ന് താൽപര്യപ്പെടുന്നു